ആ നമസ്കാരം ഉണ്ട് ചേച്ചി എന്താണ് വിളിച്ചത്

ഒന്നും ഇല്ലപ്പാ ഒരു ഈ നിങ്ങളെ കാസർഗോഡിലെ നല്ലൊരു തുണീൻ്റെ ഷോപ്പ് ഏതെന്ന് അറിയാമോ കണ്ണൻസ് അല്ലെ ആ ആ നല്ല പിന്നെ കുറച്ച് കുറച്ച് മോഡേൺ ഡ്രസ്സും പിന്നെ കുറച്ച് റേറ്റെല്ലം കുറവിന് പിന്നെ ഡിസ്കൗണ്ട് ഉള്ളത് ഏതെങ്കിലും ഷോപ്പ് അറിയാമോ കല്ല്യാൺ സിൽക്കല്ലേ എങ്ങനെ സെലക്ഷൻ അത് സെലക്ഷൻ എങ്ങനെ സെലക്ഷൻ നല്ല ഉണ്ടല്ലേ ആ ആ പിന്നെ വേറെ വിവോ അങ്ങനത്തെ

അത് നേട്ടം അല്ലേ ആ കൂടുതൽ നിങ്ങൾ പോവുന്നത് കൂടുതലും കണ്ണൻസിനായിരുന്നു അല്ലേ ഏത് ഏത് ഏത് ആര് അതില്ല ആ ആ ആ അല്ല അനക്ക് ഡ്രസ്സ് ഇങ്ങനെ പർച്ചേസ് മാത്രം അല്ല നല്ല തുണിയെല്ലം നല്ലയുള്ള ഇത് വേണമായിരുന്നു അങ്ങനെ ഇല്ല നല്ല ഉണ്ടല്ലേ അല്ല ഒരു പ്രാവശ്യം ഇത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അല്ല ഇതാ പോയത് കല്ല്യാണ് കല്ല്യാണ് പോയിറ്റുണ്ടായി മുമ്പ് ആ കല്ല്യാൺസിൽ സെലക്ഷനെല്ലാം ഉണ്ടല്ലേ ആ അല്ല എല്ലാവരും കുറെ ആൾ പറഞ്ഞു എ സി റൂമ് അത് ഇത് കൊണ്ടും കുറച്ച് കോസ്റ്റ്ലിയാണ് അത് സെലക്ഷൻ നല്ല ഉണ്ടെന്ന് പറഞ്ഞു ആ ആ അത് വീണ്ടും എന്തോ കമ്പനി കമ്പനി ഐറ്റംസ് കമ്പനി ഐറ്റംസായത് കൊണ്ട് നല്ലയുണ്ട് പിന്നെ റേറ്റ് കുറച്ച് കൂടുതലുന്ന് പറഞ്ഞുണ്ടായിരുന്നു ക്വാളിറ്റി നല്ല ഉണ്ടല്ലേ ആ നോക്കാം ഓക്കെ പിന്നെ ആടെ ആടെ ഒന്ന് പോയിട്ട് എന്ന് ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ